വിദ്യാഭ്യാസത്തിൻ്റെ വിവിധ തലങ്ങളും അതുപോലെ സഹകരണക്കുറവും ഏകോപനക്കുറവൊക്കെ കേരളത്തിൽ കൈകാര്യം ചെയ്യുന്ന ഒരു കാര്യങ്ങളുണ്ട് വിദ്യാഭ്യാസത്തെപ്പറ്റി അതായത് ഇപ്പോൾ ഒരു കുട്ടി എന്താ പറയുക ഇപ്പൊരു പാവപ്പെട്ട വീട്ടിലൊരു കുട്ടിയാണ് എന്നുണ്ടെങ്കിൽ ആ പാവപ്പെട്ട വീട്ടിൽ കുട്ടിക്ക് വിദ്യാഭ്യാസം തുടർന്നുപോകാൻ കഴിവില്ല എന്നുണ്ടെങ്കിൽ ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവരെ ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക അല്ലെങ്കിൽ അവർക്ക് ഫീസ് അടച്ചു കൊടുക്കുക അവരെക്കൊണ്ട് അവർക്കൊരു ജോലി കിട്ടുന്നത്തുവരെ അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക നടത്തി കൊടുക്കുക അവർക്കുള്ള ഫീസുകളും അവർക്കുള്ള പഠന സഹായത്തിനായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കിക്കൊടുക്കുക എന്നുള്ള കാര്യങ്ങളെല്ലാം ഇന്ന് പല വിദ്യാഭ്യസ സ്ഥാപനങ്ങൾ മാത്രമല്ല ചില സ്പോൺസർമാർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് അതുപോലെതന്നെ സ്കോളർഷിപ്പുകൾ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പുകൾ അതുപോലെ പല വിഭാഗങ്ങളിൽ പഠി പെടുന്ന കുട്ടികൾക്ക് മുൻഗണന ഇപ്പോൾ ഒരു ജോലി നേടി കൊടുക്കുന്നതുവരെ കാര്യങ്ങൾ നോക്കുക അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വിദ്യാഭ്യാസത്തിൽ സ്ഥാപനങ്ങളിൽ ചെയ്യുന്നുണ്ട് പിന്നെ ചില സ്ഥലങ്ങളിൽ ചില പ്രൈവറ്റ് അതായിട്ട് പ്രൈവറ്റായിട്ടുള്ള ചില എല്ലാവരേയും പറയുന്നില്ല ചില കോളേജുകൾ അതുപോലെ അത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെല്ലാം ചിലപ്പോൾ ഫീസിൻ്റെ പേരിൽ കുട്ടികൾക്ക് ക്ലാസ്സ് അറ്റൻഡ് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ ഒന്ന് അവരോട് അവരുടെ കാര്യങ്ങൾ നോക്കാൻ ആരുമില്ല ആരും സഹായിക്കാൻ ആരുമില്ലാത്തൊരവസ്ഥ വരുമ്പോൾ പഠനം നിർത്തേണ്ടി വരുന്ന സാഹചര്യങ്ങൾ വരുന്നുണ്ട് അന്ന് ആരും സഹായിക്കാൻ ചിലർക്ക് ഉണ്ടാവില്ല പക്ഷേ ഇന്ന് ഇന്ന് ഇന്ന് ആ ഒരു കാലഘട്ടം മാറിയിരിക്കുന്നു കാരണം ഇന്ന് എന്നു വച്ചു കഴിഞ്ഞാൽ ഒരു നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഒരു കുട്ടിക്കും എന്താ പറയുക പഠിക്കാൻ പഠിക്കാതിരിക്കരുത് എല്ലാവർക്കും വിദ്യാഭ്യാസം വേണമെന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ് അതുപോലെ തന്നെ കുടുംബത്തിലെ അവസ്ഥകളെല്ലാം അന്വേഷിച്ചിട്ടാണെങ്കിലും അവർക്ക് കൂടുതൽ എക്യുപ്മെൻ്റ്സ് പഠിക്കാനുള്ള എക്യുപ്മെൻ്റ്സ് സാധനങ്ങൾ കാര്യങ്ങളെല്ലാം വേണമെന്നുണ്ടെങ്കിൽക്കൂടി അതെല്ലാം ചെയ്തു കൊടുക്കാനും കോളേജുകളിലെ ആയാലും സ്കൂളുകളിലാണെങ്കിലും അധികം അധികൃതർ എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് ഇന്ന് പല വിദ്യാഭാസ സ്ഥാപനങ്ങളിലും കുട്ടികൾ പഠിക്കുന്നുണ്ടെങ്കിലും ആ പഠിക്കുന്നതിൽ ഭൂരിഭാഗം കുട്ടികൾക്കും കഴിവുള്ളവരും ഉണ്ടാവാം കഴിവില്ലാത്തവരും ഉണ്ടാകാം പക്ഷെ നന്നായി പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണെന്നുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങളെല്ലാം ഒരു കോളേജ് ഏറ്റെടുത്ത് നടത്തുന്ന കാര്യങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ ഇപ്പോൾ മാർക്ക് ഉന്നതമായ മാർക്ക് നേടി വിജയിക്കുന്ന കുട്ടികൾക്ക് പ്രോത്സാഹന സമ്മാനങ്ങൾ അതുപോലെ നല്ല രീതിയിൽ പഠിക്കുന്ന കുട്ടിക്ക് റാങ്കുകൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇന്നൊരു വേർതിരിവില്ലാതെ സ്കൂളുകളിലും കോളേജുകളിലും വിദ്യാഭ്യാസത്തെ കാണുന്നുണ്ട് വിദ്യാഭ്യാസം ഒരു കച്ചവടമായിട്ട് ഇന്നാരും കാണുന്നില്ല